ഹലോ ഗുഡ് ഈവനിങ് മേഡം അതേല്ലോ ആരാണ് സംസാരിക്കുന്നത് ആ അതെയതെ മേഡം ഞങ്ങൾ വളരെ നല്ലൊരു കസ്റ്റമർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് മാഡം വൺ എത്ര നൈറ്റ് ആൻഡ് ഡേയാണുദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ പല റേറ്റിലുള്ള കോട്ടേജുകൾ അവൈലബിളാണ് നമുക്കെങ്ങനെയാണ് നാല് നമ്പർ പ്ലസ് ആളുകളുണ്ടാവുവോ അ മിനിമം എത്ര നമ്പർ ഓഫ് പേഴ്സൺസ്സുണ്ടാകുമെന്ന് പറയാമോ ഓക്കെ മേഡം അപ്പം നമുക്ക് പ്രീമിയായിട്ടും അല്ലാണ്ടും പലതരത്തിൽ കോട്ടേജസ്സവൈലബിളാണ് ഇപ്പോൾ വില്ലാസാണെങ്കിൽ നമുക്ക് ത്രീ ബെഡ്റൂമടക്കം ഒരു ചെറിയ കിച്ചൻ സെറ്റപ്പും അറ്റാച്ചഡ് ബാത്രൂമക്കെ സഹിതം നമുക്കങ്ങനെ അവൈലബിളാണ് അല്ലെങ്കിൽ ഡോർമെട്രി പോലെയും അവൈലബിളാണ് നമ്മൾ ആ നമ്മൾ ഫുഡ്ഡെല്ലാം നമ്മളിവിടന്ന് പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ അഡൾട്ട്സിന് നമ്മൾ ഇപ്പം മിനിമം ഇപ്പോൾ ഏറ്റോം കുറഞ്ഞതാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഒരഡൾട്ടിന് കുട്ടികൾക്ക് അഞ്ചുവയസ്സിൽ താഴെ കുട്ടികൾക്ക് ഫ്രീയാണ് പത്തുവയസ്സ് അഞ്ചുവയസിനു മേലെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഫൈ ഹൺഡ്രഡാരിക്കും പെർ ഹെഡ്ഡ് പിന്നെ ഈ ആയിരത്തഞ്ഞൂറെന്നുള്ളത് നിങ്ങൾ സെലസിക്ററ് ചെയ്യുന്ന കോട്ടേജ് വില്ലാസന്സരിച്ച് റേറ്റ് മാറ്റാം അതുപോലെ തന്നെ പ്ലസ് ജീ എസ് ടി ആൻഡ് സി എസ് ടിയുണ്ടാവും പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടീട്ട് ഒരു കിഡ്സ് പാർക്കുണ്ട് നമുക്കൊരു ജീപ് സഫാരിയുണ്ട് പിന്നെ ഒരു സൺ സെറ്റല്ലെങ്കിൽ സൺ റൈസ് നമ്മുടെ ക്ലൈമറ്റനുസരിച്ചിട്ടായിരിക്കും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഡീ ജെ ഹോളുണ്ട് പിന്നെ ക്യാമ്പ് ഫയറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനോ കുട്ടികളുടെ ബെർത് ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആനിവേർസറിയൊക്കെ സെലിബ്റേറ്റ് ചെയ്യാൻ നമ്മളോട് ഇൻഫോം ചെയ്താൽ നമ്മളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് സ്ഥലങ്ങളക്കെ കാണുമ്പോൾ നമ്മളെന്തായാലും അതായത് ലെഞ്ച് ഡിന്നറക്കെ നമ്മൾ നിങ്ങളിവിടുന്നു സ്കിപ്പാകുവാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ക്യാഷിൽ നമുക്കഡ്ജസ്റ്റെ ചെയ്യാം എന്ത് എന്തുകൊണ്ടും നല്ലൊരു ചോയിസായിരിക്കും മേഡം ആ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സുണ്ടാകും ഇപ്പോൾ പറയാണെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ജ്യൂസ്സ് തരും പക്ഷേ അതിന് അഡീഷണൽ ചാർജുണ്ടാകും മിനറൽ വാട്ടറ് നിങ്ങൾക്ക് ഫ്രീയായിരിക്കും എത്ര ബോട്ടിൽ വേണേലും തരും നിങ്ങളുടെ റൂമിലൊരു ഇലക്ട്രിക്ക് കെറ്റിലും ടീ പാക്കറ്റ് കോഫി ഷുഗറെല്ലാം അവൈലബിളായിരിക്കും നിങ്ങൾക്കൊരു മിനി ഫ്രിഡ്ജുണ്ടാകും അതിലും അത് പക്ഷേ നമ്മളെക്സ്ട്രാ ബില്ലടിക്കുമ്പോൾ എടുക്കുന്നതിനനുസരിച്ച് ചാർജ്ജ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഏ സി റൂമായിരിക്കും എല്ലാം അവൈലബിളാരിക്കും മേഡം ഇപ്പം വൺ വൺ വീക് പാക്കേജായതുകൊണ്ട് നിങ്ങൾക്ക് വൺ ടൂ ഡെയ്സും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നമ്മൾ സപ്പ്ളിമെൻറ്ററിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാരിക്കും ആ നില്ല ഓക്കെ മേഡം അപ്പം നമ്മൾ അപ്പോൾ ഏഴുദിവസത്തേക്കല്ലേ ഞങ്ങളിവിടത് ഡേറ്റ് കറക്റ്റ് പറയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കാമായിരുന്നു ഓക്കെയാണ് മേഡം അപ്പോൾ നിങ്ങൾ വരാനുദ്ദേശിക്കുന്ന ഓക്കെയല്ലേ ഓക്കെ ഓക്കെ നമ്മളെത്ര ആൾക്കാരാണോ അവരുടെ ആധാർ കാർഡിൻറ്റൊരു കോപ്പീം നിങ്ങളുടെ ഡീറ്റെയിൽസൊന്നു നമുക്കീ നമ്പറിലേക്ക് വാട്സാപ്പ് അയച്ചേക്കാവോ ഒരു ടോക്കണ് ഓഫ് അഡ്വാൻസുണ്ടാകും ഞാനിതെല്ലാം ചെയ്തതിനു ശേഷം ഫോമെല്ലാം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന്ശേഷം മേഡത്തിനെ അറിയിക്കു വിളിച്ചറിയിക്കുന്നതായിരിക്കൂട്ടോ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഫോർ ചൂസിങ് പാരഡൈസ്